ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് ഹോളി വർണ്ണങ്ങളുടെ ഉത്സവം ആയിട്ടാണ് ഹോളി ആഘോഷിക്കുന്നത് ദുഷ്ടതയുടെ മേലുള്ള നല്ലതിൻ്റെ വിജയത്തെയാണ് ഹോളി സൂചിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രകടനമായി വിലയിരുത്തപ്പെടുന്നു വിലയിരുത്തപ്പെടുന്നു മറ്റു ഉത്സവമാണ് വിഷു കേരളത്തിൻ്റെ പുതു പുതുവത്സരമായിട്ടാണ് വിഷു കൊണ്ടാടുന്നത് കേരളീയർ വിഷുക്കണി ഒരുക്കി വിഷുവിനെ വരവേൽക്കുന്നു മുതിർന്നവർ കുട്ടികൾക്ക് വിഷുക്കൈനീട്ടം നൽകുന്ന ഒരു ആചാരവും നിലനിൽക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ആഘോഷമാണ് ഓണം കേരളീയരുടെ പ്രധാന ഉത്സവമാണ് ഓണം അത്തം മുതൽ തിരുവോണം വരെ പത്ത് ദിവസമായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത് കേരളം ഭരിച്ചിരുന്ന മഹാബലി രാജാവിൻ്റെ വരവിനെയാണ് ഓണം അനുസ്മരിക്കുന്നത് കേരളത്തിലെ എല്ലാ ജനങ്ങളും ജാതിമതഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു പൂക്കളമിട്ടും പരമ്പരാഗത നൃത്ത കലകളായ കഥകളി തിരുവാതിരകളി ഓണപ്പാട്ട് പുലികളി വടംവലി വള്ളംകളി തുടങ്ങിയവ ഈ ദിവസങ്ങളിലെ ആഘോഷങ്ങളാണ് കേരളീയരുടെ ഓണാഘോഷത്തിലെ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് ഓണം ഓണസദ്യ ഇന്ത്യയിലെ അവധി ദിവസങ്ങളിൽ ഏറ്റവും പ്രധാന്യ മുള്ളതാണ് സ്വാതന്ത്ര്യ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷുകാരുടെ അടിമയത്തത്തിൽ നിന്നും ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനെ അനുസ്മരിച്ച് എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കപ്പെടുന്നു രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ന്യൂഡളിയിൽ പ്രധാനമന്ത്രിയും സംസ്ഥാന തലസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരും ഇന്ത്യൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു ആഗസ്റ്റ് പതിനഞ്ച് രാജ്യം അവധി ദിവസമായി കൊണ്ടാടുകയാണ് മറ്റൊരു അവധി ദിവസമാണ് റിപ്പബ്ലിക് ഡേ ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ഇന്നേ ദിവസം തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതും എല്ലാ വർഷവും ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യയുടെ നെടും തൂണുകൾ ആയ കര നാവിക വ്യോമസേനകളുടെ സേനകളെ ആദരിക്കുകയും അവരുടെ പരേഡുകൾ പരേഡുകളും സാംസ്കാരിക ഘോഷയാത്രകളും നടത്തപ്പെടുന്നു അന്നേ ദിവസം രാജ്യത്തിൻ്റെ പ്രഥമ പൗരനായ പ്രസിഡൻ്റ് പതാക ഉയർത്തുകയും രാജ്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീരയോദ്ധാക്കളെ അനുസ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതികളായ ഭാരതരത്ന പത്മഭൂഷൻ പത്മവിഭൂഷൻ തുടങ്ങിയവ നൽകപ്പെടുന്നു അന്നേദിവസം ഇന്ത്യയിൽ അവധി ദിനമാണ്